ഞാൻ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമായിട്ട് ഈ ഗതാഗത പ്രശ്നവും പിന്നെ റോഡിലൂടെ ഉണ്ടാകുന്ന അ കുണ്ടും കുഴിയും

കാലാവസ്ഥ മോശം കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റുവായി കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ വന്യമൃഗങ്ങൾ വരുന്നതിന് നമുക്കൊന്നും തടയാൻ കഴിയില്ല അതുകൊണ്ട് കൂട്ടം കൂടി വാഹനമെടുത്തിട്ട് അ ഒപ്പം ആരെങ്കിലും ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ മണ്ണ് ഇടിച്ചിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ പതുക്കെ വാഹനം ഓടിച്ച് പോകാൻ ശ്രദ്ധിക്കുക ഇടുങ്ങിയ റോഡുകളിലൂടെയൊക്കെ അ ഒരു ഹെവി വാഹനം വന്നാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ